ഞാനാണെങ്കിൽ പട്ടിണിയെ കുറിച്ചാണ് ഞാൻ ഫോട്ടോഗ്രാഫ് അധികം എടുക്കാൻ തോന്നുന്നത് ദാരിദ്ര്യം അതിനെ ആ ഫോട്ടോഗ്രാഫിലൂടെ നമുക്ക് മറ്റുള്ളവരെ കാണിച്ച് കൊടുത്ത് ആ അവസ്ഥകളെന്തെന്ന് നമ്മള് ഓരോ ഫുഡ് വേസ്റ്റ് ആക്കുന്നതും വസ്ത്രം ഇല്ലാതെ വസ്ത്രം തോനെ വാങ്ങിക്കൂട്ടുന്ന ഇതൊന്നും ഇല്ലാത്തവരുടെ വേദനയൊക്കെ നമ്മള് ഫോട്ടോഗ്രാഫിയിലൂടെ കാണിച്ചു കൊടുക്കാനാണ് ഞാഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മള് എത്രത്തോളം ഫുഡ് വേസ്റ്റാക്കുന്നു ഫുഡ് വേസ്റ്റാക്കരുതെന്ന് നമ്മള് ഒന്ന് ഓർമപ്പെടുത്താന് അതൊക്കെ ഒരു ഫോട്ടോഗ്രഫിയിലൂടെ കാണിച്ചുകൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് വളരെ ഒരു നല്ല കാര്യമാവും ഞാനാണെൽ അതാണ് സ്വീകരിക്കുക ദാരിദ്ര്യം അതൊക്കെ എന്താണെന്ന് ഞാൻ നല്ല വ്യക്തമായി കാണിച്ചു കൊടുക്കും പട്ടിണി ഭക്ഷണം കിട്ടാത്തവരുടെ സങ്കടവും ഓരോ ഇതും നമ്മള് ഫോട്ടോഗ്രഫിയിൽ പകർത്താൻ ഞാൻ താല്പര്യപ്പെടുന്നു അതാണ് ഞാൻ സ്വീകരിക്കുക